സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സൗജന്യ മരുന്നുകൾ ലഭിക്കാറുണ്ട് പിന്നെ മരുന്നുകൾക്ക് താങ്ങാവുന്ന വിലയിൽ ലഭിക്കാറുണ്ട് മെഡിക്കൽ പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിൽ നമ്മൾക്ക് പരമാവധി പണം കൊടുത്തുതന്നെ മരുന്നുകൾ ലഭിക്കാൻ സാധ്യതയുള്ളു പിന്നെ അതൊരു പ്രൈവറ്റ് ആശുപത്രിയിലാവുമ്പോൾ അധികം എന്താ പറയുക പെട്ടന്ന് ഡോസ് കൂടുതലുള്ള മരുന്നുകളായിരിക്കും പിന്നെ പെട്ടന്ന് എന്താ പറയുക അസുഖങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ സർക്കാർ ആശുപത്രിലാവുമ്പം നമുക്ക് പതുക്കെ അസുഖങ്ങൾ എല്ലാം കുറയാൻ സാധ്യതയുള്ളു പിന്നെ അതു മാത്രമല്ല നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കാണിക്കുന്ന ഇതുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ പ്രാവശ്യം പ്രൈവറ്റിൽ കാണിച്ചാൽ നമ്മുടെ അസുഖം എല്ലം കുറയുന്നതാണ് പിന്നെ അധികം പൈസേയിൽ ഒന്നും ഒന്നും വേണ്ടി വരുന്നില്ല ആരോഗ്യ ആശുപത്രി ആരോഗ്യ കേന്ദ്രത്തിൽ വേറെ പൈസ ഒന്നും ആവശ്യം വരുന്നില്ല പിന്നെ പ്രൈവറ്റിലാണ് നമുക്ക് പൈസച്ചിലവ് വരുന്നത് പിന്നെ ഒറ്റ ദിവസം കൊണ്ടുതന്നെ രോഗങ്ങളെല്ലാം ഭേദമാവും പിന്നെ സർക്കാർ ആശുപത്രിയിലാവുമ്പം പൈസയൊന്നും കൊടുക്കണ്ട കാര്യമില്ല